ഹലോ ആ ഇത് മറ്റേ റസ്റ്റോറന്റ് ഓണർ അല്ലെ മറ്റേ കോഴിക്കോടുള്ളത് ആ ഓക്കേ ഞങ്ങളൊരു ടെൻ പ്ലസ് ഫിഫ്റ്റി മെമ്പേർസ് മറ്റന്നാൾ ആകുമ്പോൾ കാലിക്കറ്റ് എത്തുന്നതാണ്

ആ അപ്പം നമ്മൾക്ക് കേരളമാണ് ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് മീൽസും പിന്നെ രാവിലെ സാധാ ആ ഒരു നാല് പേര് വെജിറ്റേറിയനുണ്ട് ബാക്കി പതിനൊന്ന് പേര് നോൺവെജുമാണ് ഓ സീ ഫുഡ് കുഴപ്പമില്ല സ്പെഷ്യലായിട്ട് ഇപ്പം എന്താ കരിമീൻ പൊള്ളിച്ചത് അങ്ങനത്തെ ഐറ്റംസ് പൊള്ളിച്ച ഐറ്റംസ് ആയിക്കോട്ടെ പിന്നെ എന്നാൽ രാവിലെ രാവിലെ സാധാ പോലെ ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും ഇഡലി പുട്ട് അങ്ങനത്തെ ഐറ്റംസ് മതി ആ ആയിക്കോട്ടെ ബൊഫെ മതി ഉച്ചയ്ക്ക് നമ്മൾക്ക് ട്രഡീഷണലായിട്ടല്ലേ അപ്പോൾ സദ്യ തന്നെ ആയിക്കോട്ടെ അപ്പോൾ മീൽസായിട്ടുതന്നെ ഓക്കെ പിന്നെ നൈറ്റ് നോൺവെജ് ആയിട്ട് എല്ലാവർക്കും എന്താ ബിരിയാണിയോ മന്തിയോ എന്താ പ്രശ്നമില്ല എന്തായാലും കൊഴപ്പമില്ല ആ ഓക്കെ ഉച്ചയ്ക്ക് നോൺവെജ് വേണ്ട രാത്രിയായാൽ ആ നാല് പേർക്ക് നിങ്ങൾ ചപ്പാത്തിയും സ്റ്റൂവോ അങ്ങനെയെന്തെങ്കിലും മതി വെജിറ്റേറിയൻ അല്ലെ അങ്ങനെയെന്തേലും മതി ഇത് അല്ലാത്തവർക്ക് ബിരിയാണിയോ മന്തിയോ എന്താ ഉള്ളതെന്നു വച്ചാൽ പിന്നെ അല്ല രണ്ട് ദിവസം വേണം രണ്ട് ദിവസത്തേക്ക് സീ ഫുഡ്ഡ് നമുക്ക് രണ്ടാമത്തെ ദിവസം ആക്കാം നൈറ്റ് ആ ആ ഉച്ചയ്ക്ക് ട്രഡീഷ്ണൽ ഫുഡ് തന്നെ മതി ഉച്ചയ്ക്ക് ട്രഡീഷണൽ ട്രഡീഷണൽ തന്നെ മതി അതായത് ആ ഓക്കേ സദ്യ തന്നെ മതി ഓക്കേ അപ്പോൾ ഇതിന് ടോട്ടൽ ആയിട്ട് എത്രയാണ് എമൗണ്ട് വരിക പതിനഞ്ച് ഓക്കേ ഓക്കേ ട്വൻ്റി തൗസൻ്റ് അല്ലെ അപ്പോൾ ഒരു അഡ്വാൻസ് ഞാൻ ഒരു ഫൈവ് തൗസൻ്റ് ഞാൻ അങ്ങോട്ട് ചെയ്തേക്കാം ആ ഈ നമ്പറിൽ ഈ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എവിടെയായിരുന്നു ആ ഓക്കെ ഓക്കെ ഓക്കെ ലൊക്കേഷൻ ഒന്ന് വാട്സാപ്പ് ചെയ്യണേ ഓക്കെ ശരി എന്നാൽ മാറ്റാൻ